എൻ്റെ നാട്ടിൽ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് സഫേറ് പറഞ്ഞിട്ട് കാറുണ്ട് അവർ നല്ല ഒരു സർവീസാണ് കേട്ടൊ അവർ അത് ഓലെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ അന്ന് ഡൽഹിയും ആഗ്ര ഒക്കെ പോയത് അപ്പം നമ്മളെ ഓരോ സ്ഥലങ്ങൾ കാണിച്ച് തരണതും കാര്യങ്ങളെ കുറിച്ച് ശരിക്ക് പറഞ്ഞ് തരാനും ഒക്കെ നല്ല ഉഷാറേനു ഓല് പിന്നെ ഭക്ഷണമാണെങ്കിലും നല്ല മിതമായ റേറ്റിൽ ഉള്ള ഭക്ഷണങ്ങളും ഓര്ക്ക് ചാർജും അത്ര തന്നെ ഉള്ളു നല്ല ചാർജ് ഒന്നുമില്ല മിതമായ രീതിയിലുള്ള ചാർജൊക്കെ ഈടാക്കുകയുള്ളു നല്ല പെരുമാറ്റമാണ് എല്ലാ സ്ഥലത്തും കൊണ്ട് പോവും സ്ഥലങ്ങളൊക്കെ ശരിക്കും നമ്മൾക്കായിട്ട് ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് തരികയും ചെയ്യും പിന്നെ ഓരോ സ്ഥലത്തിനെ കുറിച്ചും അവിടുത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഓല് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണത് ഓര് കൊട്ടാരോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ചരിത്രങ്ങളും അത് ഉണ്ടാക്കിയതും അത് ആര് എങ്ങനെ എപ്പോൾ എങ്ങനെ ഒക്കെ ഉണ്ടാക്കി അതിനെ കുറിച്ചൊക്കെ ഉള്ള കറക്റ്റ് വിവരങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണുണ്ട് അതേപോലെ നമ്മൾ നല്ല ഭക്ഷണവും നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അവർ തരണത് എല്ലാ സ്ഥലത്തും കൊണ്ട് പോവാനും എല്ലാം കാണിച്ച് തരാനും ഒക്കെ നല്ല ഉഷാറുള്ള ആളുകളാണ് നമ്മൾക്ക് ഓലെ കൂടെ പോവുമ്പോൾ ഒന്നിനെ കുറിച്ചും ഒരു ടെൻഷൻ അടിക്കാതെ തന്നെ പോവാം എവിടെയാണ് കാണണ്ടതെന്നും എത്ര സമയം അവിടെ ചെലവഴിക്കണമെന്നും അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നും അവിടെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പെരുമാറണം തിരിച്ച് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വെരണം അങ്ങൻത്തെക്കെ നല്ല ഒരു പ്ലാനിങ്ങോടു കൂടിയാണ് ഓരോ സ്ഥലവും കാണാൻ അവർ നമ്മളെ കൊണ്ടു പോവൽ പിന്നെ യാത്ര ആണെങ്കിലും നല്ല സുഖമാണ് നല്ല വണ്ടിയും നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കൊണ്ടോണ വണ്ടികളും നമ്മളെ കൂടെ പോരണ ഗൈഡും നമ്മളോടൊക്കെ നല്ല കമ്പനിയായിട്ടുള്ള ഗൈഡിനെ ഒക്കെയാണ് നമ്മുടെ കൂടെ പറഞ്ഞ് അയച്ച് തരുന്നത് നല്ല രീതിയിലുള്ള പെരുമാറ്റേന്നു വീണ്ടും ഓലെ കൂടെ പോവാനുള്ള പോവാൻ നമ്മൾക്ക് ഇഷ്ടപ്പെടും ആ രീതിയിലുള്ള പെരുമാറ്റമാണ് ഓലെടുത്തുന്നുള്ളത് പിന്നെ ഒന്നാമത് നല്ല റേറ്റാണ് അത്യാവശ്യം നല്ല നമ്മൾക്ക് ആർക്കായാലും ഉൾകൊള്ളാൻ പറ്റുന്ന റേറ്റിലാണ് ഓര് കൊണ്ടോണത് നല്ല സർവീസാണ് ഓരത്